ഹലോ ആരാണ് സംസാരിക്കുന്നത്

ആ ഓക്കെ ഓക്കെ ഇത് എവിടെ വച്ചാണ് മിസ്സ് ആയത് ഏത് ട്രെയിനിൽ വച്ചാണ് ഏത് സ്റ്റേഷനിൽ വച്ചാണ് മിസ്സ് ആയത്

നിയർ ബൈ സ്റ്റേഷനിൽ എവിടെ ആയിട്ടാണ് താങ്കൾ ഇറങ്ങിയത് നിയർ ബൈ സ്റ്റേഷൻ ഏതാണ് ലൊക്കേഷൻ ഹാ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം താങ്കൾ ഇപ്പം എന്താണെന്ന് വച്ചാൽ നിങ്ങളുടെ നമ്പറ് ബ്ലോക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് വിളിച്ചത് ചെയ്യാം വേറെ അത് നമുക്ക് ഇപ്പം ലൊക്കേഷൻ ഇപ്പം ഫോൺ ആരേലും കൈയ്യിൽ എടുത്താൽ ജീ പ്പീ എസ് ട്രാക്കിങ് എങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ അത് നമുക്ക് നോക്കണ്ടതുണ്ട് അപ്പം ഇത് വച്ചിട്ട് നമുക്ക് റെയിൽവേ പോലീസിൽ ചെന്ന് എൻക്വയറി ചെയ്യാൻ അത് എന്നിട്ട് ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് സൈബറ് വഴി മൂവ് ചെയ്യാം താങ്കളുടെ ഫോണിൻ്റെ മോഡൽ കാളർ ഡീറ്റെയിലൊക്കെ ഒന്ന് പറയൂ ആ ഓക്കെ ഓക്കെ അതിൻ്റെ ഫോണിൻ്റെ കൂടെ എന്തേലും താങ്കളുടെ എന്തേലും വേണ്ടപ്പെട്ട പ്രൂഫുകളോ വേറെ എന്തേലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നോ അതോ ഫോൺ മാത്രേ പോയിട്ടുള്ളോ അല്ല ഞാൻ ചോദിച്ചത് അതിൻ്റെ അതിൻ്റെ കൂടെ താങ്കളുടെ വേറെ പ്രൂഫ് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആധാർ പാൻ കാഡ് ഏറ്റിയെം അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ ആ താങ്കൾ ഫോൺ ചാർജ് ചെയ്യാൻ വച്ചേക്കുകയായിരുന്നതോ ബാങ്കിലേ റഫറൻസ് ലാസ്റ്റ് ആയിട്ട് താങ്കൾ ഉറങ്ങുവായിരുന്നോ ലാസ്റ്റ് യൂസ് ചെയ്ത ഒരു ടൈമൊന്ന് പറയാമൊ എങ്ങനെ യൂസ് ചെയ്ത ഫോൺ ഓക്കെ നമുക്ക് ആ എന്താണേലുമൊന്ന് നമുക്ക് ലീഗലീ മൂവ് ചെയ്യാൻ നോക്കാം എനിക്ക് അതിന് താങ്കളുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പര് വേറെ ഒരു ഫോൺ നമ്പര് അത് നഷ്ടപ്പെട്ട ഫോൺ കിടക്കുന്ന ഫോണിലെ ആ ആ ഫോണിലെ നമ്പറും കൂടെ ഒന്ന് പറയണേ എനിക്ക് അത് നോട്ട് ചെയ്യാമായിരുന്നു

പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ നോട്ട് ചെയ്യുന്നുണ്ട്

ഓക്കെ താങ്കളുടെ പേര് ജോയൽ അല്ലേ സ്ഥലം കൈനകരി ഓക്കെ ജോയൽ ഞാൻ നോക്കിയിട്ട് ഞാൻ ഓ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്നതായിരിക്കും ഓക്കെ ശരി ശരി